ഹലോ ഇത് ക്യാബ ഏജൻസി അല്ലേ ഞാനൊരു നാലു മണിക്ക് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആറു മണിയാവാനായിട്ടും ഇതുവരെ ക്യാബ് വന്നിട്ടില്ല ഞാൻ അവിടെ ഡ്രൈവറെ വിളിച്ചിട്ട് ഡ്രൈവർ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഇത്ര സമയം ലേറ്റ് ആയാൽ എനിക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടതാണ് ഓൾറെഡി ലെറ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പം പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്നാണ് ചെയ്യേണ്ടത് നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ നമ്മളിങ്ങനെ ക്യാബൊക്കെ ബുക്ക് ചെയ്യുന്നത് ആ ഡ്രൈവറെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല രണ്ടു മണിക്കൂർ ആയി ഡ്രൈവർ ലേറ്റ് ആയിട്ടുള്ളത് ഞാനും എൻ്റെ ഫാമിലിയും ഉണ്ട് എൻ്റെ കൂടെ അപ്പം വേറൊരു പ്രൈവറ്റ് വണ്ടിയിൽ പോവാൻ ആണെങ്കിൽ അതിൻ്റെ ഒരു ഓപ്ഷനും ഇല്ല അപ്പോൾ ഇപ്പോൾ എന്താണ് ചെയ്യുക നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഡ്രൈവറെ വിളിച്ചിട്ട് ഒരു പത്തു മിനിറ്റിനുള്ളിൽ വരാൻ വേണ്ടി പറയുക അല്ലെങ്കിൽ എനക്കിപ്പോൾ ഇത് ക്യാൻസൽ ആക്കണം ഈ ഞാൻ ഈ ക്യാബ് ക്യാൻസൽ ആക്കുകയാണ് ഞാൻ വേറെ വണ്ടി പിടിച്ചിട്ട് പോയ്ക്കൊള്ളാം എനിക്കിനിയും വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഒരു പത്ത് മിനിറ്റ് കൂടി ഞാൻ വെയിറ്റ് ചെയ്യും അതിനു മുന്നേ നിങ്ങൾക്ക് വണ്ടി എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കുക അല്ലെങ്കിൽ ഞാൻ ഇത് ക്യാൻസലാക്കുക ആണ് ഇത്രയും ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഞാൻ നിങ്ങളെ വിശ്വസിച്ചാണ് ഇങ്ങനെ ക്യാബ് ബുക്ക് ചെയ്തത് പക്ഷേങ്കിൽ ഞാൻ ഭയങ്കര ഡിസ്സപ്പോയിൻ്റ് ആയിപ്പോയി നിങ്ങളുടെ ഇതിൽ അതുകൊണ്ട് നിങ്ങൾ ഡ്രൈവറെ വിളിച്ചിട്ട് ഡ്രൈവറെ വിളിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് എന്നെ ഒരു പത്തു മിനിറ്റിൽ വിളിക്കണം പത്തു മിനിറ്റു കൂടെ ഞാൻ വെയിറ്റ് ചെയ്യും അല്ലെ നിങ്ങൾ അത് ക്യാൻസൽ ചെയ്തോളു